പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ ക്യാമറകളിലൊക്കെ ആ സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളു പഴയ വീടുകളിൽ ചെന്നുകഴിഞ്ഞാലൊക്കെ കാണാം യാതൊരു കേടുപാടുകളും കൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങള് കാലം പുരോഗമിച്ചപ്പോഴത്തേക്കും ക്യാമറയുടെ സംവിധാനത്തിലൊക്കെ മാറ്റം വന്നു പുതിയ രീതിയിലുള്ള ക്യാമറകളൊക്കെ കണ്ടുപിടിച്ചു എത്ര ദൂരത്തു നിന്നു വേണമെങ്കിലും ഫോട്ടോഗ്രാഫി നടത്താനുള്ള ലെൻസുകള് കണ്ടുപിടിച്ചു കളർ ചിത്രങ്ങളെടുക്കാം അങ്ങനെ പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഫോട്ടോഗ്രാഫി സംവിധാനം പിന്നെ ഇപ്പോള് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട് ആർക്കും എടുക്കാം കൊച്ചു കുട്ടികൾക്ക് വരെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഫോട്ടോ എടുക്കാനും അറിയത്തക്ക രീതിയില് നമ്മുടെ ശാസ്ത്രം വളർന്നുകഴിഞ്ഞു